അല്ല പാലക്കാട് ആരോഗ്യ സംരക്ഷണം സാമൂഹിക പിന്തുണ എന്നിവ കൂടുതലാണ് കാരണം ഇപ്പോ തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ അവരുടെ വീട്ടിൽ പോയി അവര് കിടക്കുന്ന സ്ഥലത്ത് പോയി വേണ്ടത് എന്താണ് എന്ന് അന്വേഷിക്കാനും അതെക്കുറിച്ച് പറയാനും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘമുണ്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഡോക്ടറും നേഴ്സും വന്ന് ചെക്ക് അപ്പ് ചെയ്യാനും അതുപോലെ അവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഉപദേശം നൽകാനും എല്ലാം സംവിധാനങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്ക് ഉള്ള വാർദ്ധക്യ രോഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തളർന്ന് കിടക്കുന്നവരോ അവർക്ക് എല്ലാവർക്കും വേണ്ട സാമൂഹിക സഹായം ഉറപ്പാക്കാനും എല്ലാം ഗവൺമെൻറ് തയ്യാറാണ് അവരുടെ ആരോഗ്യ സംരക്ഷണം കൂടുതലും സംരക്ഷിക്കാൻ എല്ലാം ഗവൺമെൻറ് തയ്യാറാണ് എന്നാണ് അവര ഇത് കാരണം അവർക്ക് വേറെ ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണം എന്നില്ല വിളിച്ചാൽ വീട്ടിൽ വന്ന് പരിശോധിക്കാനും ചികിത്സക്ക് വേണ്ട ഇൻജെക്ഷനായാലും മരുന്നായാലും നൽകാനും ഡോക്ടർമാരായാലും നേഴ്സമാരായാലും കിട്ട് വരാറുണ്ട് അതുകൊണ്ട് അതെല്ലാം ഒരു നല്ല കാര്യങ്ങളാണ്